വൈദ്യുതിയുടെ ചില അപകടവശങ്ങളെക്കുറിച്ചിട്ട് നനഞ്ഞ കൈകൊണ്ട് അയേൺ ബോക്സ് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട് ഫേസ് വയറിൽ ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഇൻസുലിൻ കോട്ടിങ്ങ് നഷ്ടപ്പെട്ട് പോയ അയേൺ ബോക്സ് ഉണ്ടാകും അപ്പം അത് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കാൻ സാധ്യത ഉണ്ട് പിന്നെ നനഞ്ഞ കൈ കൊണ്ട് സ്വിച്ച് ബോഡ് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ഷോക്ക് അടിക്കും ഈ ഷോക്ക് അടിച്ച് കഴി ഷോക്ക് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തീ പൊള്ളലിനെക്കാൾ അപകടകാരിയാണ് വൈദ്യുതി കൊണ്ടുള്ള ഷോക്കുകൾ അത് ഇൻറ്റേണൽ ഓർഗാൻസിനെ വരെ നേരിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യത ഉണ്ട് പിന്ന വൈദ്യുതി അടിച്ച് അതായത് ഷോക്ക് എറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദ്യുതി ആളുമായിട്ടുള്ള ബന്ധം പെട്ടെന്ന് തന്നെ വിച്ഛേദിച്ചിട്ട് വൈദ്യ സഹായം തേടുന്നതാണ് നല്ലത് അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ആ വൈദ്യുതി ആ ഷോക്ക് ഏൽക്കുന്ന സന്ദർഭങ്ങളെ എങ്ങനെ നമ്മൾ ഇല്ലാതാക്കാം നമുക്കെങ്ങനെ തരണം ചെയ്യാം ആദ്യം ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമിന്നലുള്ള സമയത്ത് ഇലക്ട്രിക്ക് സാധനങ്ങൾ ൻ്റെ വയർ ഊരി മാറ്റുക പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് നമ്മൾ ഫോൺ ഉപയോഗിക്കാതിരിക്കുക പിന്നെ നനഞ്ഞ് വന്ന കൈകൊണ്ട് സ്വിച്ച് ബോഡ് ഒന്നും തൊടാണ്ടിരിക്കുക പിന്നെ ത്രീ പിൻ മാക്സിമം ഉപയോഗിക്കുക അതുപോലെ തന്നെ കുട്ടികൾ സ്വിച്ച് ബോഡ് എത്തുന്ന ഭാഗ സ്ഥലത്തൊന്നും കുട്ടി കുട്ടികളെത്തുന്ന ഭാഗത്തൊന്നും സ്വിച്ച് ബോഡ് സ്ഥാപിക്കാതിരിക്കുക ആ കുറച്ചും കൂടി മുകളിലായിട്ട് സ്ഥാപിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് ഷോക്ക് ഏൽക്കുന്നതിൽ നിന്നും രക്ഷപെടാൻ പറ്റും